ഭൂമിയുടെ അടിയിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് കിണർ എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ ആഴം ഓരോ സ്ഥലം അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത് അതായത് ഓരോ സ്ഥലം അനുസരിച്ചിട്ടിരിക്കും അതിന്റെ ആഴം ചില സ്ഥലത്ത് അതിനു നല്ല ആഴം ഉണ്ടായിരിക്കും ചില സ്ഥലത്ത് കുറച്ച് ആഴമേ ഉണ്ടായിരിക്കുകയുള്ളൂ പക്ഷേ പൊതുവേ കിണറുകൾക്ക് നല്ല ആഴം കാണാറുണ്ട് അതുകൊണ്ടു തന്നെ സാധാരണ വെള്ളം കോരുന്നത് നമ്മൾ കപ്പിയും കയറും ഒരു തൊട്ടിയും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിൽ നിന്ന് വെള്ളം കോരിയെടുക്കാറുള്ളത് പക്ഷേ പണ്ടുള്ളവർ വെള്ളം കോരിക്കൊണ്ടിരുന്നത് പാളയും കയറും വച്ചിട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ അറിയാം ഒരുപാട് ടെക്നോളജി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് പമ്പും വന്നു സോ ഒരു കേവലം ഒരു സ്വിച്ച് ഇട്ടാൽ ഒരു സ്വിച്ച് ഉപയോഗിച്ചാൽ നമുക്ക് അത്രയും ആഴത്തിലുള്ള ആ ഒരു വെള്ളം ഒരു നിമിഷ നേരം കൊണ്ട് മുകളിലേക്ക് വലിച്ചെടുത്ത് ആ ഒരു ടാങ്കിലേക്ക് നിറയ്ക്കാൻ പറ്റുന്നു ആ ഒരു ഇലക്ട്രിക് പമ്പ് വച്ചിട്ട് അപ്പോൾ നമുക്ക് വെള്ളം കോരണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ ഒഴിവാകുകയാണ് പൊതുവേ ഈ കപ്പിയും കയറും തൊട്ടിയും വച്ച് വെള്ളം കോരാന് ഒരുപാട് ആരോഗ്യവും ശക്തിയുമൊക്കെ വേണം ആ കോരുന്ന ആള്ക്ക് നല്ല ആരോഗ്യവും ശക്തിയും എല്ലാം വേണം പക്ഷേ ഇലക്ട്രിക് പമ്പ് വന്നതോടെ വന്നതോടു കൂടി ഇതെല്ലാം മാറി പണ്ടുള്ളവർ വെള്ളം കോരുന്നത് ഒരു വ്യായാമമായിട്ടാണ് കരുതിയിരുന്നത് പക്ഷേ ഇലക്ട്രിക് പമ്പ് വന്നപ്പോൾ എല്ലാവരെയും മടിയനും മടിച്ചികളും ആക്കി മാറ്റി ഇന്നത്തെ കാലത്ത് ആരും കിണറിനെ തിരിഞ്ഞു പോലും നോക്കാറില്ല ഇപ്പോൾ എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷൻസും ഉണ്ട് അതുകൊണ്ടു തന്നെ കിണറിനെ ആർക്കും വേണ്ട പൈപ്പിൽ വെള്ളം വരാത്തപ്പോഴോ അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് പമ്പ് ഇടാൻ വേണ്ടിയിട്ട് കറണ്ട് ഇല്ലാത്തപ്പോഴോ ആണ് നമ്മള് കിണറിനെ തേടി പോകുന്നത് വീട്ടിൽ കിണറുള്ളത് ഐശ്വര്യം ആണെന്നാണ് പണ്ടുള്ളവർ നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ആരും വീട്ടിൽ കിണർ കുഴിക്കാൻ പോലും തയ്യാറാവുന്നില്ല കിണര് കുഴിക്കുന്ന കിണര് കുഴിക്കുന്നത് ഒരു ശാസ്ത്രമാണ് അത് നോക്കി സ്ഥാനം കണ്ടെത്തിയാണ് പണ്ടുള്ളവരും ഇപ്പോൾ കുറച്ചു പേരും കിണർ കുഴിക്കാറുള്ളത് ഇന്നത്തെ കാലത്ത് ഒരു കിണർ കുത്താൻ തന്നെ നല്ല ഒരു നല്ല ചിലവാണ് അതുകൊണ്ടു തന്നെ പലരും അതിനു മുതിരാറുമില്ല പിന്നെ കിണറിൽ നിന്ന് നമുക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കിട്ടുന്നത് പക്ഷേ പൈപ്പ് കണക്ഷനിൽ നിന്ന് വരുന്നതാവട്ടെ ക്ലോറിൻ അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള എല്ലാ ആൾക്കാർക്കും അസുഖങ്ങളാണ് ശുദ്ധമായിട്ടുള്ള ജലം കിട്ടാനുമില്ല ഇലക്ട്രിക് പമ്പുകളെ പറ്റി പറയുമ്പോൾ ഇലക്ട്രിക് പമ്പ് രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത് ഒന്ന് കിണറിൽ ഇറക്കി വയ്ക്കുന്ന പമ്പും അതുപോലെ തന്നെ കിണറിനു മുകളിൽ വയ്ക്കുന്ന പമ്പും ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം സോളാര് പമ്പ് വരെ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ പമ്പുകൾക്കും ഒരുപാട് കമ്പനികളും ഉണ്ട് ഒരുപാട് കമ്പനിയിലുള്ള പമ്പുകൾ ഇപ്പോൾ നമുക്ക് വിപണിയിൽ ലഭ്യവുമാണ് ഇപ്പോഴും ചില നാട്ടും പ്രദേശങ്ങളിൽ ചില വീടുകളിൽ വീണ്ടും എന്താണ് വെള്ളം കപ്പിയും തൊട്ടിയും വച്ച് തന്നെയാണ് കോരിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഒരു കണക്കു കൂട്ടൽ അനുസരിച്ച് ഇനി എല്ലാവരും ഇലക്ട്രിക് പമ്പിൽ നിന്ന് വീണ്ടും കപ്പിയും കയർ കയറിലേക്കും വരാനാണ് സാധ്യത അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കറണ്ട് ബില്ല് തന്നെയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വ്യായാമവും ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞ് ഒരുപാട് ജിമ്മിൽ ഒരുപാട് പൈസ കളയുന്നുണ്ട് അതിനു പകരം അവർക്ക് ദിവസേനെ കിണറിൽ നിന്ന് രണ്ട് തൊട്ടി വെള്ളം കോരിയാൽ പോരെ അതല്ലേ നല്ലത് നമ്മുടെ ആരോഗ്യത്തിനും ബുദ്ധിക്കും ശക്തിക്കും എല്ലാം കിണർ വെള്ളം തന്നെയാണ് നല്ലത്